എൻ്റെ വീട്ടില് പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനന്ന് കുട്ടിയായിരുന്നു അതുകൊണ്ടുതന്നെ ഈ പരിപാലിക്കുന്ന രീതി ഞാനങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ എന്നാലും എന്റെ ഒരു എന്റെ ഒരു ഇതുവെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പശുവൊക്കെ നമ്മള് പശു പ്രസവിച്ചു കഴിഞ്ഞതിനു ശേഷം ആ പശുവിൻ്റെ കുട്ടിനെ നമ്മൾ ആ തൊഴുത്തിലേക്ക് തൊഴുത്തില് പശുതന്നെ ആണോ അതിനെ ചേർത്തു വെക്കുക നമ്മള് കഴിക്കാൻ കൊടുക്കുന്ന ടൈമില് ഇതിന് നമ്മള് കുറച്ച് കൊടുക്കത്തുള്ളൂ കാരണം നമ്മള് പശുവിൻ്റെ അമ്മയ്ക്കാണ് ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് നമ്മള് നല്ലപോലെ ഫുഡ് കൊടുക്കുക അത് ഫുഡ് കൊടുക്കുക എന്നിട്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ആ പശുവിൻ്റെ അമ്മയ്ക്ക് നല്ലപോലെ കഴിക്കാൻ കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ പാല് അതിൻ്റെ കുട്ടിക്ക് കുടിക്കാൻ പറ്റള്ളൂ അപ്പോൾ ആ ഒരു രീതിയില് നമ്മള് മെയിൻ്റെയിൻ ചെയ്യും നമ്മളെ നമ്മള് നേരെ പോയിട്ട് ആ കുട്ടിക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങള് അതൊന്നും കൊടുക്കത്തില്ല നേരെ നമ്മള് പശുവിൻ്റെ അമ്മയ്ക്കാണ് നമ്മള് പുല്ലാണെങ്കിലും അതിൻ്റെ കഴിക്കേണ്ട രീതികള് കഴിക്കേണ്ട സാധനങ്ങളാണ് കഴിക്കേണ്ട എന്താണെങ്കിലും പുല്ല് ഐറ്റംസ് അതൊക്കെയാണ് നമ്മള് പശുവിൻ്റെ അമ്മയ്ക്കാണ് കൂടുതല് നമ്മള് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല പാല് നല്ല നല്ല നല്ല ഇപ്പോൾ നല്ല പാലുതന്നെ അതിൻ്റെ കുട്ടിക്ക് കിട്ടും അപ്പോൾ ആ കുട്ടി അത് കുടിക്കുമ്പോൾ അതിന് വയറും നിറയും അതുപോലെത്തന്നേ അത് പെട്ടന്ന് വളരുകയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിയാണ് സാധാരണ മെയിൻ്റെയിൻ ചെയ്യാറ് പിന്നെ ഈ കന്നുകാലികളെ സ്ഥിരമായിട്ട് മേയ്ക്കുന്ന ആൾക്കാര് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ പണ്ട് ചെറുപ്പത്തില് ചെറുപ്പത്തിലാണെങ്കിലും ഞാൻ കണ്ടതിൽ വെച്ച് ഇങ്ങനെയാണ് ഞാനും ഇതുപോലെയിങ്ങനെ പശുവിനെ തീറ്റയും പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുട്ടീനെ നോക്കിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ ഭയങ്കര വളരേ ചെറുതായിരുന്നു അതുകൊണ്ടുതന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല മെയിനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കുട്ടീനെ നമ്മളങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കില്ല എന്നാലും അതിൻ്റെ അമ്മേനെ നമ്മള് നന്നായിട്ട് നോക്കും അമ്മേനെ നോക്കിക്കഴിയുമ്പോൾ അമ്മ അത്യാവശ്യം ഓക്കെ ആയിക്കഴിയുമ്പോൾ അമ്മേൻ്റെ പാലുകൊടുത്ത് കുട്ടി നന്നായിട്ട് വളരും അങ്ങനെയാണ് നമ്മള് സാധാരണ കണ്ടു വരാറ്